ഹലോ ഞാനൊരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ഇല്ലേ അത് എന്ത് കൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത് ഞാൻ കഴിഞ്ഞ തവണ ഓർഡർ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അടുത്ത മാസം മുതൽ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഓക്കേ അത് ഭയങ്കര മോശമായിപ്പോയി ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടങ്കിലല്ലേ നമുക്കതൊരു കുറച്ചും കൂടി എളുപ്പത്തിൽ ഓർഡർ ചെയ്യാൻ പറ്റുള്ളു എപ്പോഴും നമ്മുടെ കയ്യിൽ കാർഡിൽ പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പം അതെന്തായാലും ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ട് അത് ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഡിന്നറിനുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കാർഡിൽ പൈസ ഇല്ല അത്കൊണ്ട് എനിക്കത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ മാത്രമാണ് എനിക്ക് ഒർഡർ എടുക്കാൻ പറ്റുള്ളു ഇല്ല അതില്ലാത്തത് കൊണ്ടെനിക്ക് ബുദ്ധിമുട്ടാണ് ഓർഡർ പേ ചെയ്യാൻ എൻ്റെ കാർഡിൽ പൈസ ഇല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ ഫുഡ് ഒർഡർ ചെയ്ത് പൈസ മേടിയ്ക്കാൻ ഓക്കേ ക്യാഷ് ഓൺ ഡെലിവറി മാത്രമില്ല ബാക്കി യു പി ഐ എല്ലാമുണ്ടല്ലേ അതെനിക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ കാർഡിൽ പൈസ ഇല്ല അതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഓർഡർ മതി ക്യാൻസലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഓക്കേ ക്യാൻസൽ ചെയ്യേണ്ടി വരും അല്ലാതെ എനിക്ക് കാർഡ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളെ ഞാൻ കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മാസം മുതൽ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ തരാമെന്ന് ഞാൻ സ്ഥിരമായിട്ട് അവിടുന്ന് ഓർഡർ ചെയ്യുന്ന ആളാണ് നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ഓൺ ഡെലിവറി വയ്ക്കാത്തത് വളരെ മോശമാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരം ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കൂടെ നിങ്ങൾ ക്ക് ഇത് കാരണം ഒരുപാട് കസ്റ്റമേഴ്സിനെ നഷ്ടമാവും കേട്ടോ ഓക്കേ എന്തായാലും എനിക്ക് ആ ഓർഡർ എടുക്കാൻ പറ്റില്ല കാർഡിൽ ക്യാഷ് ഇല്ല അതുകൊണ്ട് ഞാൻ ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ് കേട്ടോ വേറെ ഏതെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടോ ഇല്ലല്ലോ ആ ഓക്കേ അപ്പോൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്തോളൂ കേട്ടോ താങ്ക് യു